ഞാൻ സാധരണയായിട്ട് റോഡ് ഗതാഗത മാർഗ്ഗമാണ് കൂടുതലായിട്ട് സാധാരണ യാത്രയ്ക്ക് ഉപയോഗിക്കാറുള്ളത് എന്തുകൊണ്ടാന്നു വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സൗകര്യം അനുസരിച്ചു റോഡ് ഗതാഗതം ആണ് കുറച്ചും കൂടെ കംഫോർട്ട് പിന്നെ നമ്മുടെ നാട്ടിലാണെങ്കിൽ മറ്റു ഗതാഗത മാർഗങ്ങളെക്കാളും കൂടുതൽ വരുന്നത് റോഡ് ഗതാഗതമാണ് അതായത് വ്യോമഗതാഗതവും പിന്നെ ജലഗതാഗതവും നമ്മുടെ നാട്ടിൽ ഇല്ല അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് വരുന്നത് റോഡ് ഗതാഗതമാണ് അപ്പൊ അതുകൊണ്ടാണ് റോഡ് ഗതാഗതം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പിന്നേ ഇതുകൊണ്ട് നമുക്ക് ഏറ്റവും ഉപകാരം എന്നുവെച്ചു കഴിഞ്ഞാൽ നമ്മള് നമുക്ക് ഇഷ്ടത്തിനുള്ള ടൈമിന് നമുക്ക് യാത്ര ചെയ്യുകയും തിരിച്ചു വരികയും ഒക്കെ ചെയ്യാം അതാണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു കാര്യം